എൻ്റെ പേര് ഐശ്വര്യ പ്രദീപൻ ടീച്ചർ ഈ കഥകളിയും മറ്റ് കലാരൂപങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ എൻ്റെ കൂട്ടുകാർ ടീച്ചറിനെ കുറിച്ച് കുറേ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ക്ലാസ്സിക്കൽ അവിടെയില്ല പക്ഷേ എനിക്ക് പഠിക്കാനായിട്ട് താൽപ്പര്യമുണ്ട് ആ അപ്പം ക്ലാസ്സിക്കൽ എനിക്ക് കുറച്ച് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്കും അപ്പം ഞങ്ങൾ ആ അപ്പം അതേല്ലോ

ആ മുരിക്കാശ്ശേരിയിൽ അല്ലേ ടീച്ചറിൻ്റെ ഡാൻ ആ ഞാൻ ആ ഞാൻ മുരിക്കാശ്ശേരിയിൽ കോളേജിൽ ഇപ്പോൾ പഠിക്കുന്നതാണ് അപ്പം ഞങ്ങൾ ആ വഴിയിൽ ആ ഞങ്ങൾ ആ വഴി പോകുമ്പോഴൊക്കെ ഇവിടെ ഡാൻസ് പഠിക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാറുണ്ട് ആ ഓ ഞാൻ വൈകുന്നേരം വരാൻ ചാൻസ് കുറവായിരിക്കും ആ ഞങ്ങൾ ഈ വെക്കേഷൻ വെക്കേഷന് വരാനിരിക്കുകയാണ് ആ ആ എത്രയാവും മിസ്സെ അപ്പം ഡാൻസിൻ്റെ ഫീസ് ആ ഏതൊക്കെ ഐറ്റമാണ് ഉള്ളത് ഞങ്ങൾ കഥകളിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് മ്മ് ഭരതനാട്യമൊക്കെ പഠിപ്പിക്കും ആ എൻ്റെ കൂടെ ഉള്ള രണ്ടു മൂന്ന് പേർക്കും കൂടി ഇവിടെ ചേരണമെന്ന് താല്പര്യമുണ്ട് ആ പേരൻസിനെ അല്ലെ ആ ആ അപ്പം അയ്യായിരം അല്ലേ അപ്പം ഫീസ് മൊത്തത്തിൽ ഉള്ള ഫീസാണോ അയ്യായിരം അല്ലല്ലോ ആ ആ ഞാൻ വീട്ടിൽ ഞങ്ങൾ വീട്ടിലിങ്ങനെ ആലോചിച്ചായിരുന്നു അപ്പോൾ ഫീസൊക്കെ അന്വേഷിച്ച് വെച്ചിട്ട് ഒന്നും കൂടിയൊന്ന് ഉറപ്പിക്കാനായിട്ടായിരുന്നു ആ ആ അ വെക്കേഷന് വരാനായിട്ടായിരുന്നു ആ ഇങ്ങനെ ഓരോരുത്തരൊക്കെ കളിച്ചിങ്ങനെ കാണുമ്പോൾ ഇത് കളിക്കണം എന്ന് ഒരു ആഗ്രഹം മ്മ് ടീച്ചർ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് ഓ അത്രയും വർഷം ആയോ മ്മ് മ്മ് ഇവിടെ മാത്രം ഉള്ളോ ഡാൻസിൻ്റെ സെൻ്റർ കട്ടപ്പനയിൽ ടീച്ചർ തന്നെയാണോ ഇപ്പം ഇവിടെ പഠിപ്പിക്കുന്നത് അതോ വേറെ ആരേങ്കിലും ഉണ്ടോ മ്മ് ആ മുരിക്കാശ്ശേരിയിൽ ആ ആ പക്ഷെ ഞാൻ വെക്കേഷനിലായിരിക്കും വരാൻ ചാൻസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വൈകുന്നേരം ബസില്ലായിരിക്കും വീട്ടിലേക്ക് ചെല്ലാനാണെങ്കിലും അപ്പോൾ ആ ആ ഓക്കെ ടീച്ചറെ ഞാനിത് വീട്ടിൽ പറയാം മറ്റേ ഭരതനാട്യം അത് എങ്ങനെയാണ് അതും കഥകളിക്കൊക്കെ സെയിം ഫീസ് തന്നെയാണോ ആ അയ്യായിരം തന്നെ അല്ലേ ആ അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെയോ ആ അതിന് അപ്പം നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണോ അതോ ആ

ആ ആ ആ അപ്പം വെക്കേഷൻ ടൈമിലാണ് വരുന്നതെങ്കിൽ രാവിലെ മുതൽ എത്ര മണിവരെ കാണും ക്ലാസ് മൂന്നുമണി വരെ അല്ലേ ആ ആ ഫുഡ് ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നുകൊള്ളാം ആ പിന്നെ പേരൻസിനെ കൊണ്ടുവരണോ ആ കട്ടപ്പനയിൽ ഉള്ളതോ സെയിം തന്നെ ആയിരിക്കുമോ രണ്ടിടത്തും കഥകളിയുടെ തന്നെയാണോ

ഭരതനാട്യവും കഥകളിയും മ്മ് ക്ലാസിക്കൽ മാത്രമാണോ അവിടെ പഠിപ്പിക്കുന്നുള്ളു ആ അ അല്ലാത്തതും പഠിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പം ഇത് പഠിച്ചുകഴിഞ്ഞിട്ട് ഉടനെ അതും പഠിക്കാമെന്നോർത്തിരിക്കുവാണ് മറ്റേതിനും ഫീസ് ഒത്തിരിയാകും ആം ഓ അപ്പോൾ കോസ്റ്റുംസിൻ്റെ ഇതു കൊണ്ടാണ് ഇത്രയും ഇത് വന്നത് അല്ലേ ആ ഞാനിത് വീട്ടിൽ പറയാം ആ ഇത് പഠിക്കാനല്ലേ ആ ഏകദേശം എത്ര മാസം വേണ്ടിവരും ഇതൊന്ന് ശെരിക്കും ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് മൂന്നുമാസമോ ആ രണ്ട് മാസമേ ഉള്ളൂ ആ രണ്ട് മാസം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചു തീർക്കാൻ പറ്റുവായിരിക്കുമോ ആ ഓക്കെ മിസ് ആ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ആ ഓക്കെ താങ്ക്യു